ഞാന് വളരെ കാലം മുന്ന് വായിച്ചൊരു ബുക്കാണ് എം ടി വാസുദേവൻ നായരുടെ കാലം എന്നോട് എന്റെ ഒരു കസിനും ഫ്രണ്ട്സുമൊക്കെ പറഞ്ഞായിരുന്നു ഒരു നല്ല വളരെ നല്ല ബുക്കാണ് നല്ല അവാർഡൊക്കെ കിട്ടിയിട്ടുള്ളൊരു ബുക്കാണ് പിന്നെ ഞാന് സോഷ്യൽ മീഡിയയിലൊക്കെ അതിനെക്കുറിച്ചുള്ള റിവ്യൂകളൊക്കെ കണ്ടായിരുന്നു അപ്പം അതൊന്ന് വായിച്ചാൽ കൊള്ളാമെന്നെനിക്ക് തോന്നി അപ്പം ഞാന് ഞങ്ങളുടെ അടുത്തുള്ള പാമ്പാടി പബ്ലിക് ലൈബ്രറിയിൽ പോയിട്ട് ആ ബുക്കിന് വേണ്ടിയിട്ട് ഓർഡറെയ്തു തന്നെ ആ ബുക്ക് എനിക്ക് ഒത്തിരി ടൈം ഏകദേശം ഒര് രണ്ടാഴ്ചയൊക്കെ എടുത്തിട്ടാണെനിക്ക് ബുക്ക് കിട്ടിയത് പക്ഷെ ബുക്ക് വായിക്കാൻ ഞാൻ തുടങ്ങി കഴിഞ്ഞപ്പത്തേക്കും എനിക്ക് ആദ്യം തന്നെ സ്റ്റാർട്ടിങ്ങില് തന്നെ ഒരു സ്റ്റാർട്ടിങ് കിട്ടിയൊന്നുമില്ല അത് വായിച്ചു വായിച്ചു വന്നപ്പോൾ നല്ല ലാഗ് അടിക്കുന്ന പോലെ തോന്നി തന്നെയല്ല അതിലെ ഭാഷ കുറച്ചും കൂടെ ഭാവനയൊക്കെ ചേർത്ത് എഴുതിയിരിക്കുന്നതായത് കൊണ്ട് എനിക്കത് പെട്ടെന്ന് മനസ്സിലായുമില്ല അപ്പം എനിക്ക് ഞാൻ സാധാരണ വായിക്കുന്ന തീമിൽ നിന്ന് വളരെ വ്യത്യസ്തമായതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് അത് ഭയങ്കര ലാഗ് അടിക്കുന്നതായിട്ടും ഒക്കെ തോന്നി പിന്നെ രണ്ടാഴ്ചയോളം എടുത്താണ് ഞാനാ ബുക്ക് കംപ്ലീറ്റെയ്തത് അത് എൻറ്റ ഒരു കാഴ്ചപാട് കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കത് അങ്ങനെ തോന്നിയത്